ആ ഹലോ ഗുഡ് മോണിങ് ഏ വണ് ട്രാവല്സല്ലേ സാര് ഞാൻ ഊട്ടിക്കൊരു ട്രിപ്പ് പോകാനായിട്ട് നിങ്ങളുടെ എജെന്സീടെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വെളുപ്പിന് മോണിങ് ഫൈവ് ഓ ക്ലോക്കായിരുന്നു പറഞ്ഞത് ഇത് എത്താനായിട്ടാണ് പറഞ്ഞിരുന്നത് ഇപ്പം ഫൈവ് തേര്ട്ടി ആയിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല പരാതി തരാനായിട്ട് ഞാന് വിളിച്ചത് അഞ്ചരക്ക് ഇവിടെ എത്തും അഞ്ച് മണിക്ക് എത്തും എന്നാണ് പറഞ്ഞിരുന്നത് ഫൈവ് തേര്ട്ടി ആയി ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാര് അതിനൊരു പരാതി നല്കുവാനായിട്ടാണ് ഞാൻ ഞങ്ങള്ക്ക് കൃത്യസമയത്ത് ഊട്ടിക്ക് പോയി ഇന്നു തന്നെ തിരിച്ചു വരേണ്ട സാര് നിങ്ങളുടെ ട്രാവല്സ് ഏറ്റോം നല്ല ട്രാവല്സുന്ന് പറഞ്ഞാണ് ഞങ്ങള് ബുക്ക് ചെയ്തത് അല്ലീസ്റ്റാ ട്രാവല്സിനെ വിളിച്ച ആളുടെ നമ്പറ് പോലും ഇപ്പോൾ കിട്ടുന്നില്ല സാര് ഡ്രൈവറെ എസ് ഐ സാര് ഡ്രൈവറെ വിളിച്ചിട്ട് ഇപ്പോൾ റിങ്ങ് പോലും ചെയ്യുന്നില്ല സാര് എന്താണ് ഞങ്ങളിപ്പോള് ചെയ്യേണ്ടത് ഞങ്ങള്ക്ക് മോണിങ് പോയിട്ട് തല് വരേണ്ടതാണ് സാർ അതുകൊണ്ട് സാറ് അടിയന്തിരമായിട്ട് അദ്ദേഹത്തെ കോണ്ടാക്ററ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊരു മാര്ഗം റെഡിയാക്കിത്തരണം ഞങ്ങൾക്ക് ഇന്ന് പോയാല് മാത്രമേ ഞങ്ങളെ റിലേറ്റ്സ്സെല്ലാം റെഡി ആയി പായ്ക്കും ചെയ്ത് ഇരിക്കുകയാണ് സാര് സാറത് എത്രയും പെട്ടന്നത് നെ ക്ലിയറാക്കി ഞങ്ങള്ക്ക് തരണമെന്ന് സാറിനോട് അപേക്ഷിക്കുകയാണ് അതിനുള്ള എത്രയും പെട്ടന്ന് തന്നെ അതിന്റൊരു റിപ്ലൈ സാറ് തരണം തരണം സാര്